ഹലോ സാറേ കേള്ക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഞായറാഴ്ച്ച നിങ്ങളുടെ കടയിൽ നിന്ന് കുറച്ച് ഇറച്ചി വാങ്ങിയിരുന്നേ അത് ഫ്രഷ് അല്ലായിരുന്നു കുറച്ച് അഴുക്കായിരുന്നു ആ ഇറച്ചി കേട്ടോ പക്ഷേ എന്താണെന്ന് അറിയില്ല അന്ന് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് അത് ജസ്റ്റ് അടുത്ത് അന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം ആണ് എടുത്തത് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ ആകെ അത് ഒരു അതിന്റെ ഒരു എന്താണ് പറയുക ഒരു നോ നമ്മൾ നോര്മൽ ആയിട്ട് വാങ്ങുന്ന ആ ഒരു ഇറച്ചിയുടെ ആ ഒരു ഇതല്ലായിരുന്നു അതാണ് അതൊന്ന് അഴുക്കായിരുന്നു പിന്നെ നമുക്ക് അത് വയ്ക്കാനും പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ കളയുവായിരുന്നു ഞങ്ങൾ വാങ്ങിയിട്ട് ഒന്നര കിലോ ആയിരുന്നു വാങ്ങിയത് പോത്ത് ആയിരുന്നു പോത്തിറച്ചി ആയിരുന്നു ഒന്നര കിലോ വാങ്ങിയത് പക്ഷേ എന്താണെന്ന് അറിയില്ല അതിപ്പം അങ്ങനെയായി ഇപ്പം നമുക്ക് ഞങ്ങൾക്ക് ആണെങ്കിൽ അത് ഉപയോഗിക്കാനും പറ്റിയില്ല ഞങ്ങൾക്ക് അത്രയും പൈസ നഷ്ടമായിരുന്നു അപ്പം നിങ്ങൾക്ക് വേ വേറെ എന് തിനെ ഇതായിട്ട് ചെയ്യാൻ എന്തെങ്കിലും സാധിക്കുവാണെങ്കില് കുറച്ച് നല്ലതായിരുന്നു അടുത്ത ഞായറാഴ്ച്ച അല്ലേ ആ നോക്കട്ടെ അടുത്ത തവണ ഒന്നര കിലോ കിട്ടിയില്ലെങ്കിലും ഒരു ഞാ എനിക്കും അറിയാം നിങ്ങൾക്കും അത് നഷ്ടമാണെന്നറിയാം ഒന്നര കിലോ ഇല്ലെങ്കിലും ഒരു കിലോ എങ്കിലും കിട്ടുവാണെങ്കിൽ കുറച്ച് ഹെല്പ്ഫുൾ ആയിരുന്നു കാരണം ഞങ്ങളുടെ സൈഡിൽ നിന്ന് നോക്കുമ്പം ഞങ്ങൾ ഇന്നത് പോലെ പൈസ ഒക്കെ കൊടുത്ത് ഇതാക്കിയത് വാങ്ങിയതാണ് പക്ഷേ ഇന്നത് പോലെ ആയിപ്പോയി അതുകൊണ്ടത് വേണ്ട രീതിയിൽ ചെയ്യാനോ എടുക്കാനോ ഒന്നും സാധിച്ചുമില്ല ആണോ എനിക്ക് മനസ്സിലായി സാർ പക്ഷേ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇന്നത് പോലെ ഒന്ന് ഇന്ഫോം ചെയ്തേക്കാം കാരണം അടുത്ത കസ്റ്റമർ വരുമ്പോഴാണെങ്കിലും നിങ്ങൾ നന്നായിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ ഞാന് ഒന്ന് ഇന്ഫോം ചെയ്തത് ഇറച്ചി കൊള്ളത്തില്ലായിരുന്നു എന്ന് വെച്ചാലൊരു സ്മെൽ വേറൊരു സ്മെൽ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ഞായറാഴ്ച അങ്ങനെയാണെങ്കിൽ ഞാൻ കടയിലേക്ക് വന്നേക്കാം രാവിലെ ഓക്കെ ഓക്കെ താങ്ക് യു സാർ